നമ്മുടെ പ്രദേശത്ത് ജലം കുറച്ച് ലഭ്യത കുറവാണ് അതുമല്ല ഈ ലഭ്യമാകുന്ന ജലം അത്ര ശുദ്ധമുള്ളതുമല്ല അത് നമ്മൾ തിളപ്പിച്ചാറിയതിനു ശേഷം മാത്രമേ കുടിക്കാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരു കാരണവശാലും നമുക്ക് നേരിട്ട് ഈ ലഭ്യമാകുന്ന വെള്ളം കൊടുക്കാൻ പറ്റില്ല അതിൽ ക്ലോറിൻ അങ്ങനെ പല പല കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് കാരണം നമ്മളത് തിളപ്പിച്ച് ആറിച്ചതിനു ശേഷം മാത്രമേ നല്ല വെള്ളം കൊടുക്കാൻ പറ്റത്തൊള്ളൂ ഈ ആഹാരം പാചകം ചെയ്യും പാചകം ചെയ്യുമ്പോഴാണെങ്കിൽ തന്നെ നമ്മൾ ഈ വെള്ളമാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതിന്റേതായ പല പ്രശ്നങ്ങളും നമ്മൾക്കുണ്ട് പിന്നെ നമ്മുടെ ഈ ദേശത്ത് പോഷക ആഹാര കുറവ് നേരിടുന്നുണ്ട് അത് തുടർച്ചയായി ഈ കുട്ടികളിൽ കുട്ടികളിലാണ് പോഷക ആഹാരം കുറവ് കണ്ടു തുടങ്ങുന്നത് അവരിൽ മിതമായ അതായത് വേണ്ട ആഹാരം പോഷകമുള്ള ആഹാരം അവർക്ക് ലഭിക്കുന്നില്ല അങ്ങനെ ഇതിനെ കുറിച്ചൊരു സർവേ നമ്മുടെ പഞ്ചായത്തുകൾ വഴി വന്നപ്പം പഞ്ചായത്ത് ഒരു തീരുമാനമെടുത്തു കുട്ടികൾ അതായത് അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്കു അംഗനവാടിയിൽ നിന്നും പോഷക ആഹാരം കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതി അത് വളരെ നല്ല ഒരു പ പരിഹാരം അതായത് ഈ പോഷക ആഹാരത്തിൻ്റെ കുറവിന് ഒരു പരിഹാരം കാണുന്ന ഒരു സംഭവമാണ് ആ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പ അംഗനവാടികളിൽ നിന്നും ഈ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ചെറു പയർ പരിപ്പ് കടല ഉഴുന്ന് പരിപ്പ് അരി പിന്നെ പാല് മുട്ട ഇവയൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ഇതിൻ്റെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കുട്ടികളിൽ ഈ കുഞ്ഞു കുട്ടികളിൽ പോഷക ആഹാര കുറവിൻ്റെ ആ ഒരു പ്രശ്നം പാടെ മാറിയിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും ഈ കുട്ടികളിൽ ഈ പോഷകം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിൽ പ്രതിരോധ ശക്തി പ്രതിരോധ ശേഷി ഇവ തീരെ കുറഞ്ഞു വരുന്നതായി ഒരിടക്ക് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് എന്നിട്ട് അതുമല്ല കുട്ടികളിൽ മുഖത്ത് ഇങ്ങനെ പോഷകത്തിൻ്റെ കുറവുള്ളത് കാണിക്കുന്ന തരത്തിലുള്ള ഓരോരോ പാടുകൾ ഓരോരോ അസുഖങ്ങൾ അങ്ങനെ ഉള്ളതെല്ലാം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാമായിരുന്നു അതേ സമയം ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കിയതോടുകൂടി കുട്ടികളിൽ പാടെ ഈ പോഷക ആഹാര കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ അംഗനവാടിയിൽ അംഗനവാടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാരോടും പ്രത്യേകം നന്ദി നമ്മൾ രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ പോഷകത്തിന് പോഷകം കൂടാനുള്ള തരത്തിലുള്ള പല ഭക്ഷണ സാധന പദാർത്ഥങ്ങളും നമ്മുടെ റേഷൻ കട വഴി വിതരണം ചെയ്യുന്നുണ്ട് അല്ലാതെ നമ്മുടെ സപ്ലൈകോയിലൊക്കെ ആണെങ്കിലും വില കുറവോടു കൂടി ഒത്തിരി പോഷക ആഹാരങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട്